ഹലോ എനിക്കർജൻ്റായിട്ട് വൈദ്യുതി ബില്ലടച്ചതിൻ്റെ ഒരു റെസീറ്റ് വേണമായിരുന്നു ബിൽ ബില്ല് വേണമായിരുന്നു നമ്മള്ക്കത് അവര് പറയുന്നത് നമ്മള് ബില്ലടച്ചിട്ടില്ല എന്നക്കെയാണു പറയുന്നത് നമ്മള്ക്കൊരതിനൊരു തെളിവിനു വേണ്ടിയിട്ട് വേണമായിരുന്നു ആ അതെ അതെ അവര് പറയുന്നതെന്താണെന്നുവച്ചുകഴിഞ്ഞാല് നിങ്ങള് ബില്ലടച്ചിട്ടില്ല നിങ്ങള് അതിൻ്റെ തെളിവു കാണിക്കണമെന്നാണു പറയുന്നത് അപ്പോള് നമുക്ക് അതിന്റെയൊരു തെളിവിനു വേണ്ടിയിട്ട് ഒന്ന് ബില്ല് വേണമായിരുന്നു ആ റെഡിയാക്കിത്തരുമോ ആ ഓക്കെ ഓക്കെ ആ അവര് അടച്ചിട്ടില്ലാന്നു തന്നെയാണ് നമ്മളെത്ര പറഞ്ഞിട്ടും അവര് കേള്ക്കുന്നില്ല നമ്മളത് പറയുന്നത് നിങ്ങള് അതു തന്നെയാണ് ചെയ്തത് ബില് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും കൊണ്ടുവരണം കൊണ്ടുവന്നിട്ടു കാണിക്കണമെന്നാണു പറയുന്നത് ആ അതെ അതെ അതെ ആ അവര് അത് ഡ്യൂപ്ലിക്കേറ്റ് ബില്ലെന്തേലും വേണമെന്നു പറഞ്ഞു ആ കഴിഞ്ഞ മൂന്നു മാസത്തോളായിട്ട് നമ്മുടെ ബില്ലിൻ്റെ ഇതാണ് ചോദിക്കുന്നത് അവര് അവര് അടച്ചിട്ടില്ലാന്നു തന്നെയാണു പറയുന്നത് എത്ര പറഞ്ഞിട്ടും അവര് കേള്ക്കുന്നില്ല അതെ ഒന്ന് ഒപ്പിച്ച് ഒന്ന് ബില്ല് റെഡിയാക്കിത്തരണേ